ഹലോ ചേട്ടാ ഞാൻ ഊബറിലൊരു ഓട്ടോ ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ചേട്ടൻ്റെ ഓട്ടോയാണ് ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഊബറിന്ന് തന്ന ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാൻ ചേട്ടൻ്റെ നമ്പറിൽ വിളിച്ചത് അപ്പോൾ അത്യാവശ്യം ഒരു ഓട്ടത്തിനു വേണ്ടിയിട്ടായിരുന്നു ലൊക്കേഷൻ പറഞ്ഞുതരാം ചെമ്പകശ്ശേരി മനയ്ക്ക് അടുത്താണ് അവിടൊരു അവിടെ ആ വഴിയിലോട്ടു കയറുമ്പോഴത്തേയ്ക്കൊരു പള്ളിയുണ്ട് നമ്മുടെ വഴുതക്കാടിന് അടുത്തൊരു പള്ളിയുണ്ട് പള്ളിയുടെ അടുത്തു തൊട്ടടുത്തായിട്ട് ഒരു ബസ് സ്റ്റോപ്പുണ്ട് അവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ ലൊക്കേഷൻ ഞാൻ നിൽക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്നൊന്നു വന്നെങ്കിൽ ചേട്ടാ ഉടൻ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കാരണം അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എവിടെയാണെന്നു വെച്ചാൽ ഞാൻ മൈസൂരിലോട്ടിന്നു പോകുന്നുണ്ട് അപ്പോൾ മൈസൂരിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കു ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ട്രെയിൻ ട്രിവാൻഡ്രം സെൻട്രൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ അപ്പോൾ അവിടെ പന്ത്രണ്ട് മണിക്കാണ് ട്രെയിനിൻ്റെ സമയം പക്ഷെ എനിക്കു രാവിലെ ഒന്ന് അത്യാവശ്യമായിട്ടു വേറൊരു സ്ഥലത്തു ഹോസ്പിറ്റലിൽ എന്റമ്മയേയും കൊണ്ട് പോകണം ഉണ്ടായിരുന്നതു കൊണ്ട് ഞാൻ കുറച്ചു ലേറ്റായി പോയി അപ്പോൾ ഇപ്പത്തന്നെ ചേട്ടനറിയാമല്ലൊ പതിനൊന്നു മണിയടുപ്പിച്ചായി അപ്പം എത്രയും പെട്ടെന്ന് റെയിൽവെ സ്റ്റേഷനിൽ പോയില്ലെങ്കിൽ ശ്ശേ അത് എനിക്ക് ട്രെയിൻ മിസ്സാകും പന്ത്രണ്ടു മണിക്കാണ് ട്രെയിനിന്റെ സമയം കൊടുത്തിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്നു പോയില്ലെങ്കിൽ ട്രെയിൻ മിസ്സാകും അപ്പോൾ അത്യാവശ്യമായിട്ട് എന്തിനാ പോകുന്നതെന്നു ചോദിച്ചാൽ മൈസൂരിൽ എനിക്ക് എൻ്റെ പഠനത്തിൻ്റെ ആവശ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് നാളെ തൊട്ട് ക്ലാ നാളെയല്ല രണ്ടുദിവസം കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ നാളെ ഇന്നു കയറിയാലും നാളെ അവിടെ ട്രെയിൻ അവിടെ എത്തുകയുള്ളു അപ്പോഴും കറക്റ്റ് സമയത്തിനു എത്തിയില്ലെങ്കിൽ എനിക്ക് ട്രെയിൻ മിസ്സാകും അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു വർഷം പോകും അപ്പത് ചേട്ടൻ എത്രയും പെട്ടെന്നൊന്നു വരികയാണെങ്കിൽ നല്ലതായിരുന്നു നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ തന്നെയാണ് വേണമെങ്കിൽ ചേട്ടൻ ഒന്നു കൂടി പറഞ്ഞു തരാം നമ്മുടെ പള്ളിക്കടുത്ത് വഴുതക്കാട് പള്ളിക്കടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് ചേട്ടനിപ്പോൾ വരുമെങ്കിൽ എത്രയും പെട്ടെന്നു വരുമെങ്കിൽ ഇപ്പം പ ഇപ്പൊരു പതിനൊന്നു മണിയായി ഒരു പതിനൊന്ന് പത്തിനെങ്കിലും എത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാരണം പന്ത്രണ്ടു മണിക്കാണ് ട്രെയിൻ അവിടെനിന്നെടുക്കുന്നത് അപ്പോൾ നമുക്കു നേരത്തെപോയി സീറ്റൊക്കെ കണ്ടു പിടിച്ച് അതിനകത്തു കയറണം റ്റി റ്റിനെ കാണണം ടിക്കറ്റൊക്കെ കൺഫോം ചെയ്യണമല്ലൊ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനും ഞാൻ മാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ട് അവനും കൂടി അവിടെ വെയിറ്റ് ചെയ്യാമെന്നു പറഞ്ഞു അപ്പം നേരത്തെ ഒരു ചേട്ടനൊരു പന്ത്രണ്ട് പത്തിനെത്തുകയാണെങ്കിൽ നമുക്കൊരു അവിടെയൊരു പന്ത്രണ്ട് പത്തല്ല സോറി പതിനൊന്ന് പത്തിനെത്തുകയാണെങ്കിൽ നമുക്കവിടൊരു പതിനൊന്നേ മുക്കാലാകുമ്പോഴെങ്കിലും എത്താം അപ്പോൾ എനിക്കൊരു പതിനഞ്ചു മിനിറ്റ് ട്രെയിനിൻ്റെ സംഭവങ്ങളെല്ലാം കണ്ടുപിടിക്കാനും പ്ലാറ്റ്ഫോമെല്ലാം കണ്ടുപിടിക്കാനുള്ള സമയവും കൂടി കിട്ടും അപ്പോൾ ചേട്ടനൊന്ന് പെട്ടെന്നു വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പ്ലീസ്